ഫുഡ് വെയർ സെല്ലെർ അല്ലെ ഓക്കേ എനിക്കൊരു ക്രോക്സിൻറ്റെ ചെരുപ്പ് വേണമായിരുന്നു അതിനെത്രയാണ് പ്രൈസ് അതെന്താ അത്രയും പ്രൈസ് എന്നാലും അത്ര പ്രൈസ് വരെ എന്നാലും അത്ര പ്രൈസ് വരേണ്ടിയതല്ലല്ലോ മാക്സിമം പോയിക്കഴിഞ്ഞാൽ അഞ്ഞൂറു ഇങ്ങനെയൊക്കെയല്ലേ വരേണ്ടത് ഓക്കേ ഓക്കേ ആ ഓക്കേ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനാണ് വാട്ടർ പ്രൂഫ് അതെല്ലാം ചെരുപ്പും വാട്ടർ പ്രൂഫല്ലേ അത് വെള്ളത്തിൽ ഇട്ടോണ്ടു നടക്കുന്നതല്ലേ വെള്ളം കയറുമല്ലോ അതെല്ലാ ചെരുപ്പിലും ആവും ഓക്കേ യാ യോ അങ്ങനെ അങ്ങനെ ഓക്കേ സോറി മനസിലായി പിന്നെങ്ങനാണ് കാര്യങ്ങളൊക്കെ എങ്ങനാണ് പിന്നെ പ്രൈസും കാര്യങ്ങളും കുറച്ചധികമാണ് എന്നാലും അത്രയും പ്രൈസ് വരേണ്ടതല്ല ഓക്കേ വെളിനാട്ടിന്ന് കൊണ്ടുവരുന്നെന്നും പറഞ്ഞു അത്രയും പൈസ എങ്ങനാണ് ഞങ്ങൾക്ക് കസ്റ്റമറിനു വാങ്ങുമ്പം ഒരിതു വേണ്ടേ കുറച്ചു പൈസ ഒക്കെ കുറച്ചു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു തരണ്ടേ എന്നാലും ഒരു പാവപ്പെട്ടവർഡി ഒരിത് അനുസരിച്ചു നോക്കുവാണേൽ കുറച്ചു പൈസ കുറച്ചു ലോ ബഡ്ജറ്റ് ആക്കേണ്ട എന്നാലും ഓക്കേ എന്നാലും കുറച്ചധികമാണ് സിക്സ് തൗസൻഡും അങ്ങനെയൊക്കെ എന്നാലും ഇത്രയും പൈസ വരേണ്ടിയതല്ലല്ലോ ഓക്കേ സി സിംബലും കാര്യങ്ങളും കൊടുക്കുന്നെന്നു പറഞ്ഞിട്ട് കാര്യമെന്തുവാ എന്നാലും ഹാൻഡ് മേഡ് ആയാലും എന്നാലും ഇത്രയും പ്രൈസ് ഇച്ചിരി അധികമാണ് എന്നാലും ശരി ഒരു സ്വൽപ്പം കുറക്കാൻ പറ്റോ സിക്സ് തൗസൻഡിന്ന് ഫൈ ഫൈവ് തൗസണ്ടെന്നാലും ഇച്ചിരിയും കൂടി ഒരു ലേശംകൂടി കുറക്ക് കുറക്കാൻ പറ്റോ ഒരു ലേശംകൂടി കുറച്ചാൽ മതി കുറച്ചും കൂടി ഇച്ചിരിയും കൂടി കുറ ഒരു ലേശം ഒന്ന് പറ്റുന്ന രീതിക്ക് കുറച്ചു ഒന്ന് ഇച്ചിരി അധികം കുറക്കാൻ പറ്റുമെങ്കിൽ പറ അധികം ബജറ്റ് പൈസ എൻ്റെ കൈയിൽ ഇല്ല ഓക്കേ ഓക്കേ എന്നാലും ഒരു ലേശംകൂടി കുറക്കാൻ പറ്റുമെല്ലോല്ലേ ഓക്കേ ഓക്കേ നമ്മടെ എന്നാലും ഒരു ലേശംകൂടി ഒന്ന് ഇച്ചിരിയൊന്നു കുറക്കാൻ പറ്റുമോ എന്നാലും ഇത്രയും ഇത്രയും നല്ലൊരു ചെരുപ്പെടുത്തിട്ട് ലേശം കുറക്കാൻ പറ്റുമോ എന്നാലും സിക്സ് തൗസൻഡ് ഒക്കെ അധികവാണ്

അത് കുഴപ്പമില്ല അത് നിങ്ങൾ കൊടുത്തോളു ഞങ്ങൾക്ക് ഇത്രയും പ്രൈസിന് തന്നോളൂ ഓക്കേ എന്തൊയില്ലന്ന് അപ്പം നിങ്ങളുടെ ആവരുടെ കമ്പനിയല്ലേ നിങ്ങളുടെ ഇവിടെ ചെ ചെരുപ്പിതാക്കുന്നത് വരുന്ന അവരുടെ കമ്പനിയല്ലിയോ ഓക്കേ ഓക്കേ ഓക്കേ എന്നാലും ഒരു ലേശവുംകൂടെ കുറക്കാൻ പറ്റോ എന്നാലും ഒന്നുംകൂടിയൊന്നു ലേശം കുറച്ചാൽ മതി അയ്യായിരമോ ഒരു ലേശം കൂടി കുറയ്ക്ക് പ്ലീസ് പ്ലീസ് ഒന്ന് പറ്റുന്നരീതിക്കൊന്നു കുറയ്ക്ക് കുറക്കാൻ പറ്റുമോന്ന് നോക്ക് ഓ സോറി ഓക്കേ എത്ര എത്ര പെർസെൻറ്റേജ് വരെ കാണും ഓക്കേ എന്നാൽ എനിക്കൊരു അയ്യായിരം രൂപക്ക് അയ്യായിരംരൂപ ഓക്കേയ അയ്യായിരം അയ്യായിരത്തഞ്ഞൂറു ഓക്കയാ ഓക്കേ ഞായി ഓക്കേ കൺഫേം ചെയ്തോളു എൻ്റെ ഓർഡർ കൺഫേം ചെയ്തോളു ഓക്കേ ഓക്കേ ഓക്കേ പ്രൊ വേറെ ക്രോക്സാണോ ഫ്രീ ആയിട്ട് ഓക്കേ ഓക്കേ താങ്ക് യൂ ഞാൻ എന്തേലും ഡൗട്ടുഡെങ്കിൽ ഞാൻ വിളിക്കാം ശരി ഈ നമ്പരിൽ വിളിച്ചാൽപ്പോരേ ഓക്കേ ശരി ശരി ശരി വെക്കുവാണേ